എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നതുതന്നെ ഞാൻ ഗ്രാ ഗ്രാജുയേറ്റഡാണ് അത് ഒരു വലിയൊരു നേട്ടം തന്നെയാണ് എനിക്ക് നമ്മുടെ ഒരു മീഡിയം ഫാമിലി ആണ് അതും ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ വലിയൊരു വലിയൊരു പുറത്തുവിട്ട് പഠിപ്പിക്കാനോ ഉള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഒരാളല്ല ഞാന് അതുകൊണ്ട് തന്നെ ഇപ്പം ഏതൊരു നമ്മുടെ പ്ലസ്ടു ജീവിതം കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഒന്നെങ്കിൽ മെറിറ്റിൽ കിട്ടണം അല്ലെങ്കിൽ പൈസ കൊടുത്തു വാങ്ങണം അല്ലാതെ നമ്മക്ക് എവിടെയും ഒരു സീറ്റ് കിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് പ്ലസ്ടു കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത് എനിക്ക് വളരെ ബുദ്ധി വളരേ ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഡിഗ്രി ഡിഗ്രിയിലൊരു ഒരു സീറ്റ് കിട്ടിയത് ഒരുപാട് വിഷമം മൂന്ന് അലോട്ട്മെന്റ് വന്നിട്ടും എനിക്കൊരു സീറ്റ് കിട്ടീട്ടില്ലയിരുന്നു അത് എനിക്ക് വളരെ വലിയൊരു വിഷമിച്ചൊരു സമയ ഒരു സമയമായിരുന്നു അപ്പൊൾ ആ ഒരു സമയത്ത് പൈസ കൊടുത് വാങ്ങാനും ഒരു ഒരു ചുറ്റുപാടുള്ളൊരു വീട്ടിലല്ലാത്തത് കൊണ്ടുതന്നെ എൻ്റെ പഠിപ്പ് അവിടെ നിന്നു എന്ന് കരുതിയ ആ സമയത്തു പിന്നെ എനിക്കൊരു സീറ്റ് കിട്ടി മെറിറ്റിൽ തന്നെ ഒരു സീറ്റുകിട്ടി അതിനു ഒരു പൈസയോ അല്ലെങ്കിൽ ഒരു ചിലവും വന്നിട്ടില്ല എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും അതെനിക്കൊരു വലിയൊരു നേട്ടം തന്നെയാണ് ആ ഒരു നേട്ടം എൻ്റെ ജീവിതകാലത്തിൽ മുഴുവനും ആ നേട്ടം എനിക്ക് വലിയൊരു നേട്ടം തന്നെയാണ് ഡിഗ്രി കഴിഞ്ഞു അതുപോലെതന്നെ മൂന്നു വർഷം അവിടെ ഡിഗ്രി പഠിക്കുകയോ നല്ല രീതിയിൽ പാസ്സായി പുറത്തുവരിക വരാനോ ആ ഭാഗ്യം എനിക്ക് കിട്ടിട്ടുണ്ട്